ഇപ്പോൾ എന്റെയൊക്കെ നാട്ടിലെന്നു പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് സി ജനിക്കുന്ന സമയത്ത് കുറെ ഒരു ഇപ്പം എന്താണ് ആ കു കൊച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം ഒരു ഇത്ര വയസ്സുവരെ അതിനെ കുളിപ്പിക്കുന്നതും കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഒരോരോ ഐ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് അതിന്റെ രീതിയിലാണ് ചെയ്യുന്നത് അതുപോലെത്തന്നെ കൊണ്ടു നടക്കുന്നതും ഫുഡ് കൊടുക്കുന്നതിന്റെ ആണെങ്കിലും അതുപോലെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബേസിലാണ് ഓരോന്ന് ചെയ്യുന്നത് ഇരുപത്തെട്ടു കെട്ട് കാര്യങ്ങളങ്ങനെ നൂലുകെട്ട് എന്നൊക്കെ പറയുന്ന ചടങ്ങ് കാര്യങ്ങളും അതുപോലെ തന്നെ ആ കൊച്ചിന് ചോറൂണ് കാര്യങ്ങൾ അങ്ങനെ ഓരോരോ കൾച്ചറിന്റെ ഭാഗമായ ഓരോ കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നത് അതാ കൊച്ചിന്റെ പ്രായത്തിനനുസരിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഫുഡ് കൊടുക്കുന്നതിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെയും ആയിട്ട് ഓരോ ആചാരങ്ങളുടെ ബേസിലും അതുപോലെത്തന്നെ കൊച്ചിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതായ കുറെ കാര്യങ്ങളും ആ കൊച്ചിന്റെ പേരിടൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനെ ഓരോരോ ആചാ ആചാരത്തിന്റെ ബേസിലായിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ആ കൊച്ചിനെ എങ്ങനെയാണ് ഇതാകുന്നതും അതിന്റേതായ ഓരോ ദിവസ കണക്കിലും മാസത്തിന്റെ കണക്കിലും അതുപോലെ പ്രായത്തിന്റെ ബേസിലും ഒക്കെ ഓരോരോരോ രീതിയിലാണ് ചെയ്യാറുള്ളത് പ പഠനം വരെ എത്തുന്നതും ഓരോ ഇതും ഓരോരോ സ്റ്റെപ്പ് ബേസ് ആയിട്ടാണ് ച് മുന്നോട്ടുപോകുന്നത്